ഹലോ ഇത് എമർജൻസി ഹെൽപ്ലൈൻ അല്ലേ ഞാൻ എൻ്റെ പേര് കെവിൻ എന്നാണ് ഞാനിവിടെ കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ വിളിക്കുന്നത് ഇവിടെ റൈസ് ബൗൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റകത്ത് ഒരു വ്യക്തി ശ്വാസം മുട്ടലിവ്ടെ അനുഭവിക്കുകയാണ് ചുറ്റുപാട് മൊത്തം ലോക്കായിയിട്ടിരിക്കുകയാണ് അത് ഫുൾ സെൻസറി ഗ്ലാസ്സ് ആയിരുന്നു അതിനകത്ത് എങ്ങനോ പുള്ളിക്കാരൻ ലോക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരന് ശ്വാസം മുട്ടലിവിടെ ശ്വാസം മുട്ടലിവിടെ അനുഭവിക്കുകയാണ് ഇവിടെ എങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ വേഗം എത്രയും വേഗം രക്ഷപ്പെടുത്താൻ ഞങ്ങളാവുന്നതും ശ്രമിച്ചു പറ്റുന്നില്ല ടെക്നിക്കൽ ആയിട്ട് പരമായിട്ട് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് എത്രയുംവേഗംതന്നെ നിങ്ങൾക്ക് വരാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരനെ എത്രയുംവേഗം ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയും ഇവിടെങ്ങും ആർക്കും ടെക്നിക്കൽപരമായിട്ട് ആർക്കും ഇവിടെ അറിയത്തില്ല അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളെ സഹായം ഞങ്ങൾ അന്വേഷിക്കയാണ് എത്രയും വേഗം നിങ്ങൾ കടന്ന് വരുക അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഇവിടെനിന്ന് രക്ഷപ്പെടുത്തുക എന്നാൽ മാത്രമേ വേഗം അടുത്ത കൂടെ നല്ലൊരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ഈ ഒരു ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്രയും വേഗം ശ്രമിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കൂട്ടം നാട്ടുകാര് ഇവിടെ തടിച്ച് കൂടിയിട്ടുണ്ട് ഞങ്ങൾ ആർക്കും ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്ത വിധം ഇത് ക്ലോസ് ആയിരിക്കുകയാണ് നിങ്ങളുടെ ഏവരുടെയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ എത്രയും വേഗം സഹായം ഞങ്ങൾ എത്രയും വേഗം പ്രതീക്ഷിക്കുന്നു